ആ ചേട്ടാ പറയ് ചേട്ടാ നമ്മൾ ഇവിടെയൊക്കെ ഉണ്ട് നിങ്ങളെ കാണാനില്ല

ആ പറയ് വീട് ആക്കാല്ലോ നമുക്ക് ഓ ആ ട്രഡീഷണൽ അല്ലേ അത്

ചേട്ടാ നമ്മള് നിങ്ങള് അനുസരിച്ച ഒരു പ്ലാൻ ഉണ്ടാക്കാം അപ്പോ നിങ്ങള് നിങ്ങളുടെ ഒരു ആവശ്യം പറയുകയാണെങ്കിൽ അതായത് എത്ര റൂം വേണം അല്ലെങ്കിൽ ബെഡ്റൂം എങ്ങനെ വേണമെന്ന് ഉള്ള ഒക്കെയുള്ള ഒരു കണക്കു പറഞ്ഞു തരികയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് വാസ്തു ഒക്കെ പ്രകാരം നോക്കിയിട്ട് ചെയ്തുതരാം

ഓ ഓക്കേ അത് ചെയ്യാം നമുക്ക് നിങ്ങള് ബെഡ് റൂമും അതൊക്കെ എത്രയെണ്ണം വേണം ഓക്കെ

ഓ ഓക്കെ ഓക്കെ ഈ മറ്റേ നടുത്തളമൊക്കെ താഴെ വരും ഓക്കെ ഓ അത് ചെയ്യാം നമ്മൾ സൈറ്റ് നോക്കിയിട്ട് ആ ഓക്കെ ആ അവിടുത്തെ ഓക്കെ ഓ ഓ ആ അപ്പോൾ കുഴപ്പമില്ല ചെയ്യാം ചെയ്യാം ഓക്കെ

മുകളിലേക്കും ചെയ്യാം അത് ഓപ്പൺ ആയിട്ട് കൊടുക്കാം ഇല്ല ഇല്ല ഓ ചെയ്യാലോ ഓ ചെയ്യാം ചെയ്യാം

രണ്ടുമൂന്ന് മാസത്തില് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് കഴിയുമെന്ന് തോന്നണില്ല എന്തായാലും ഒരു ഒരു ആറുമാസം ഏഴു മാസം വേണ്ടിവരും കാരണം നമുക്ക് ഉറപ്പിച്ച് ചെയ്യണ്ടേ അതിപ്പോ നമുക്കൊന്ന് നോക്കണം ഒരു എസ്റ്റിമേറ്റ് ഇട്ട് നോക്കീട്ടെ പ്ലാൻ ഒന്ന് വരച്ച് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് ഒന്ന് നോക്കിയിട്ട് അതിൻ്റെയൊരു എസ്റ്റിമേറ്റ് ഞാൻ അയച്ചു തരാം പ്ലാൻ അല്ലേ നിങ്ങൾ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നമ്മള് പ്ലാനും കുറച്ചു ഡിസൈൻസും ഉണ്ട് ത്രീഡിയുണ്ട് അപ്പോ അതും കൂടി ഒന്ന് വരച്ച് ഒരു നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിത്തരാം വീട് എങ്ങനെ വരും എന്നുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്നല്ലേ പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് എന്ന് പറയുമ്പോൾ എങ്ങനെയും ഒരു അമ്പത് അറുപത് ലക്ഷം റുപ്പികേന്റെ അടുത്ത് വരും ഒന്നിൻ്റെ അടുത്ത് അത് നമ്മള് ഇൻറീരിയറും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഫിനിഷിങ്ങ് ചെയ്യുമ്പോൾ ആ റേറ്റ് വരും ഓക്കെ ആഹ് അത് അത്രേയുള്ളൂ ആ ഓ അത് നമുക്ക് ചെയ്യാല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഓഫീസിലേക്ക് ഒന്ന് വരൂ ഓ ചെയ്യാലോ നിങ്ങള് നിൽക്കണമെന്നില്ല നമ്മള് തന്നെ നമുക്ക് സൂപ്പർവൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എല്ലാം നോക്കീട്ട് ചെയ്തു തരാം ഇരിക്കാം ഇരിക്കാം ഓക്കേ ഓ ചെയ്യാം അതെ അതെയതെ അതെ ഓക്കെ ശരി